ഇവിടെ ചില്ലറ മൊത്ത വ്യാപാര വിപണികളും എല്ലാം ഏറെ ഉണ്ട് ചില്ലറ കടയിൽ നിന്നും വാങ്ങുമ്പോൾ നമ്മൾ എം ആർ പി പ്രൈസ് ഫുള്ളായി കൊടുക്കേണ്ടി വരും മൊത്ത വ്യാപാര വിപണിയിൽ വാങ്ങുമ്പോൾ നമുക്ക് ട്രെയിഡ് ഡിസ്ക്കൌണ്ട് കിട്ടാനും ഹോൾസെയിലായിട്ട് നിറയെ വാങ്ങാനുള്ളവർക്ക് വാങ്ങാനും പറ്റും ഈ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ നിന്നും വരുന്ന എമൌണ്ട് ഡിഫറൻസ് നമുക്കത് പ്രോഫിറ്റാവാനും ചാൻസുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഓൺലൈൻ ഷോപ്പിങ്ങ് വിപണി നോക്കുമ്പോൾ നമുക്ക് അതേപോല ഹോൾ സെയിൽ റെയിറ്റായിട്ടാണ് കിട്ടുക ഡയരക്ടായിട്ട് മാനുഫാക്ചറിങ്ങ് ആളുടെ അടുത്ത് നിന്നും നമുക്ക് ഡയരക്ടായിട്ട് കസ്റ്റമറിന്റടുത്തു നിന്ന് കിട്ടുമ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് വരാറുണ്ട് നല്ല റെയിറ്റ് കുറവായിട്ടായിരിക്കും കിട്ടുക ക്വാളിറ്റി പ്രോഡക്ടും കിട്ടും അതില് ഡെലിവറി ചാർജ്ജ് ഉണ്ടെങ്കിലും നമുക്ക് റീറ്റെയിലായിട്ട് ചില്ലറ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കംപെയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറെ ലാഭമുള്ള ഓൺലൈൻ ഷോപ്പിംഗ് നൽകുന്നത് എന്നാലും അതിന് ചീത്ത വശവും ഉണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമുക്ക് തൊട്ടു തൊട്ടാ തൊട്ടു നോക്കിയോ ക്വാളിറ്റി ചെക്ക് ചെയിതിട്ടോ നമുക്ക് വാങ്ങാൻ കഴിയുകയില്ല പിന്നെ അതിന് വല്ല ഡാമേജ് പ്രൊഡക്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേൺ ചെയ്യാനുള്ള പ്രോസസ്സ് കുറച്ച് ഡിലേ വരുത്താനും കുറെ പ്രൊസീജിയേർസും ഫോളോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ട്രഡീഷണൽ മെത്തേഡായിരിക്കും ഒന്നു നല്ലത് അത് ചില്ലറയാണെങ്കിലും മൊത്ത വ്യാപാര കടയാണെങ്കിലും ഏതായാലും നമുക്ക് ട്രഡീഷണലായിട്ട് പോയി വാങ്ങുന്നതായിരിക്കും നല്ലത്